സമൂഹത്തെ സേവിക്കുന്നതിൻറ്റേയും സമൂഹത്തിലേക്ക് എന്തെങ്കിലും തിരിച്ച് കൊടുക്കണം എന്നുള്ള ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നാഷണൽ സർവീസ് സ്കീമിൻറ്റെ എല്ലാ അംഗങ്ങളും കൂടി നിലമ്പൂർ പൂക്കോട്ടുംപാടം എന്ന ഗ്രാമത്തിലേക്ക് ഒരു യാത്ര ചെയ്തിട്ടുണ്ട് ഏഴ് ദിവസമായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ യാത്രാ സമയം നിലമ്പൂരിൽ പൂക്കോട്ടും പാടത്തുള്ള ഒരു എയ്ഡഡ് യൂ പി സ്കൂളിലായിരുന്നു ഞങ്ങളുടെ താമസ സൗകര്യം ആദ്യം തന്നെ ഒരാഴ്ചയോളം സമയമെടുത്ത് കൊണ്ട് ധാരാ മനോഹരമായ ചെടികളെല്ലാം ശേഖരിച്ച് സ്കൂളിൻറ്റെ മുറ്റത്ത് ഒരു മനോഹരമായ പൂന്തോട്ടം ഞങ്ങൾക്ക് ഒരുക്കുവാൻ സാധിച്ചു ഇത് കൂടാതെ എല്ലാ ദിവസവും ഞങ്ങൾ ഗ്രാമത്തിനടുത്തുള്ള ഒരു പുഴയിൽ പോവുകയും അവിടത്തെ ഗ്രാമവാസികളുടെ അഭ്യർത്ഥന പ്രകാരം അവിടെ ഒരു തടയണ മണൽ മണൽ ചാക്കുകൾ കൊണ്ടുള്ള ഒരു തടയണ നിർമ്മിക്കുകയും ചെയ്തു ഇത് കൂടാതെ ഗ്രാമവാസികൾ എല്ലാം വിളിച്ച് കൂട്ടിക്കൊണ്ട് ഒരു ദിവസം ഔഷധ സസ്യങ്ങളുടെ ചെറിയ തൈകൾ ഞങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്നു ഇവ ഗ്രാമവാസികൾക്കു വേണ്ടി വിതരണം ചെയ്യുകയും ചെയ്തു ഇത്തരത്തിലുള്ള സാമൂഹ്യ സേവനമായി ബന്ധപ്പെട്ട ഒത്തിരി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ ക്യാമ്പിൻറ്റെ ഭാഗമായി ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ഗ്രാമത്തിലുള്ള ഒരു അനാഥാലയം സന്ദർശിക്കുകയും അവരോടപ്പം ക്രിസ്തുമസ് ആഘോഷിക്കുകയും ചെയ്തു വളരെ മനോഹരമായ ഏഴ് ദിവസവും ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ നടത്തിയ ഒരു നല്ല യാത്രയായിരുന്നു നാഷണൽ സർവീസ് സ്കീമിൻറ്റെ ഭാഗമായി ഞങ്ങൾ ചെയ്തത്